മലയാള ഭാഷ എന്ന് പറയുന്നത് മലയാളികൾക്ക് നമ്മളെ കേ കേരളത്തിലുള്ളവർക്ക് മാത്രമേ നല്ല ഫ്ലുവൻ്റായിട്ട് മലയാളം സംസാരിക്കാൻ പറ്റുള്ളൂ മലയാള ഭാഷ മലയാളഭാഷയുടെ ഉപജ്ഞാതാവ് തുഞ്ചത്ത് എഴുത്തച്ഛനാണ് ആ മലയാള ഭാഷ ഓരോ സ്ഥലത്തും വടക്ക് കേരളത്തിലും തെക്കൻ കേരളത്തിലും മാറ്റി മാറ്റാണ് തിരുവനന്തപുരത്തുള്ളവർക്ക് വേറെ തരത്തിലുള്ള ഭാഷയാണ് കണ്ണൂരുള്ളവർക്ക് വേറെയാണ് മലപ്പുറം സൈഡിലുള്ളവർക്ക് വേറെ തരത്തിലാണ് അങ്ങനെ ഭാ മലയാള ഭാഷതന്നെ ചില ചില രീതികളിൽ തന്നെ അതിൽ ഭാഷ തരം തിരിച്ചിട്ടുണ്ട് വേറെ സൗണ്ട് അങ്ങനെ കണ്ണൂർകാർക്കൊക്കെ ഒരു ഇത് എന്താ പറയുക ഒരു ബാക്കിലൊരു വാൽ കൂടുതലാണ് അങ്ങനുള്ള സൗണ്ടുകളൊക്കെ ഭാഷയുടെ മലയാള ഭാഷ അത്രയും ഞാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് മലയാളം ഭാഷ മലയാള ഭാഷയെ ഞാൻ സ്നേഹിക്കുന്നു മ മറ്റുള്ളവർക്ക് മലയാളഭാഷയോട് ഭയങ്കര ഒരു അടുപ്പം തന്നെയാണ് നമ്മുടെ മലയാളികൾ ഭാഷ കേൾക്കാൻ വേണ്ടിയിട്ട് ചില ഇന്നത്തെ യൂട്യൂബ് ചാനലുകളെല്ലാം നമ്മുടെ മലയാളം ഭാഷ കേൾക്കാൻ വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുകയാണ് ഞങ്ങളെങ്ങനെയാണ് പറയുന്നത് ആ ഒരു രീതിയെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ട് വരെ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഭയങ്കര സവിശേഷതകളും പ്രത്യേകതകളും നമ്മുടെ മലയാള ഭാഷയ്ക്കുണ്ട്